ഞാൻ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ മലയാളം പഠിച്ചു അതായത് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അതായത് അങ്കനവാടിയിൽ തൊട്ടേ നമുക്ക് മലയാള അക്ഷരങ്ങൾ പാ പിന്നെ കണ്ടം മ കണ്ടു മനസ്സിലാക്കാനും അതു വെച്ചിട്ട് ഓരോ മൃഗങ്ങളുടെ പേരു പറഞ്ഞ് പഠിക്കാനും ഒക്കെയാണ് തുടക്കം മുതൽ പഠിക്കുന്ന പിന്നെ ഒന്നാം ക്ലാസ്സു തൊട്ട് അക്ഷരങ്ങൾ അതായത് സ്വരാക്ഷരങ്ങളും വ്യഞ്ചനാക്ഷരങ്ങളും സ്കൂളുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് അതനുസരിച്ച് ഓരോ മൃഗങ്ങളും ഓരോ അക്ഷരങ്ങൾ അനുസരിച്ച് പാട്ടുകളുമുണ്ടാക്കിയാണ് ഞങ്ങൾ ടീച്ചർമാർ ഞങ്ങൾക്കു പഠിപ്പിച്ചു തന്നത് അതാണ് നമ്മുടെ അടിത്തറ പിന്നെ അത് ക പഠിച്ചതു കൊണ്ടുള്ള ഗുണങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മലയാളം സംസാരിക്കാനും നന്നായിട്ട് മലയാളം വർത്താനം പറ വർത്താനം പറയാനും വായിക്കാനും പിന്നെന്താണ് ആൾക്കാർ ചോദിക്കുന്നതിന് മലയാളം ചോദിക്കുന്നതിനുള്ള കൊസ്റ്റിൻസ് ആ തിരിച്ചു കൊടുക്കാനും നമുക്കറിയാം അതാണ് നമ്മൾ മലയാളം പഠിച്ചു കൊണ്ടുള്ള ഗുണങ്ങൾ